അതെ ഞങ്ങളെന്നാണ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അതെ ഊബറ്കാരല്ലേ ആ നമുക്കപ്പം പറയാനുള്ളതെന്ന് വച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ കാര്യം തന്നെയാണ് നിങ്ങളിപ്പമൊരു വണ്ടി ഈ ഒരു സർവ്വീസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെക്കെ നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നമുക്കത്യാവശ്യോള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സൗകര്യം വിളിക്കുന്നത് തന്നെ ആ അതന്യേ അതിലേക്ക്ന്നേണ് പറഞ്ഞ് വരുന്നത് കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വച്ച് കഴിഞ്ഞാൽ ഇല്ല ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുണ്ടായിട്ടില്ല നല്ല പെരുമാറ്റം തന്നെയിരുന്നു അയാളുടെ ഭാഗത്ത്ന്ന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ കാറിൻ്റെ കാര്യാണ് കാറ് എന്ന് വച്ച് കഴിഞ്ഞ്ഴിഞ്ഞാൽ ആ വണ്ടീലാ സീറ്റ് നമ്മളിത്രേം പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അങ്ങനാകുമ്പോൾ ആ സീറ്റൊരു മിനിമം ഒരു എന്തെങ്കിലും ഒരിതിൽ വേണല്ലോ ക്വാളിറ്റി കുറച്ചങ്കിലൊന്ന് വേണല്ലോ അപ്പം സീറ്റുകൾക്ക് ഭയങ്കര മോശവസ്ഥയാണ് സീറ്റുകളുടേന്ന് പറയുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞ്ഴിഞ്ഞാൽ അതെ സീറ്റുകളും കൊള്ളില്ല സീറ്റുകളാകെ കീറിപ്പറിഞ്ഞ പോലെയാണ് നമുക്ക് കാണാം നമുക്കത് കണ്ടത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇല്ല സാർ ഞങ്ങളത് കണ്ടു ഞങ്ങൾ കണ്ടത് കൊണ്ടാണ് വെറുതെ വേണമെങ്കിൽ സാറ്ന് ഫോട്ടോസ് അയച്ച് തരാം ഞങ്ങൾ ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മളിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെപ്പം എന്തൊണ്ടങ്കിലും എന്തെങ്കിലും പ്രൂഫുണ്ടായിരിക്കണംന്ന് നമുക്കറിയാം അതുകൊണ്ടന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് വച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം തീരെ പോര സീറ്റുകളൊന്നും ഒരു വൃത്തിയുള്ള സീറ്റല്ല നമുക്കത് ഇരിക്കുമ്പം തന്നെ ഒട്ടും ഒരു ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല പിന്നേന്ന് വെച്ച് കഴിഞ്ഞ്ഴിഞ്ഞാൽ അതിലെ ഹോണ് വർക്ക് ചെയ്യുന്നില്ല നമ്മളൊരു ട്രാഫിക്കിൽ പെട്ട് പോയിട്ട് നമുക്ക് തിരിച്ചൊന്ന് ഹോണടിക്കാൻ പോലും അത് വർക്ക് ചെയ്യുന്നില്ല അത് പ്രവർത്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് നമ്മൾ അപ്പോഴാണ് നോക്കും എന്താണ് ഇങ്ങനൊരു കാര്യം നമ്മളിപ്പൊരു വളവിലൂടെക്കെ പോകുമ്പോൾ എന്താ ചെയ്യുന്നത് നോക്കാം നമ്മൾ പതുക്കെ പതുക്കെ പോവാ ചെയ്യുന്നത് കാരണം ഇങ്ങനെ പ്രവത്തിക്കാത്തൊരു സാധനം കൊണ്ട് നമ്മളെങ്ങനെയാണ് പോവുക അപ്പമതും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ കാര്യങ്ങളന്നെ പഞ്ചറാകുന്ന തരത്തിലുള്ള ടയറായിരുന്നു നമ്മളത് കീറുമ്പം തന്നെ ശ്രദ്ധിച്ചായിരുന്നു അപ്പങ്ങനെ നിങ്ങളത് സർവ്വീസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നൂല്ലങ്കിൽ അതാണ് നമുക്ക് മെയ്നായിട്ട് പറയാനായിട്ടുള്ളത് ഞങ്ങളൊട്ടും തൃപ്തിയല്ല ഈ ഒരു സൗകര്യത്തിൽ നമ്മളൊട്ടും തൃപ്ത്തീന്ന് പറയാനായിട്ടില്ല സാർ ഇല്ല ഇല്ല ശരി